ആ എൻ്റെ പേര് രോഹിത്ത് എന്നാണ് ഞാനിവിടെ അടുത്ത് പാറേപ്പള്ളി അമ്പലത്തിൽ ധ്യാനത്തിന് വന്നതാണ് അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ റെസ്റ്ററൻറിൽ അപ്പം അതിൻറെ അവൈലബിലിറ്റി ചോദിക്കാൻ വിളിച്ചതാണ് ഒരു ഉച്ചയോടടുത്ത സമയത്തിനാണ് വരാൻ ഉദ്ദേശിക്കുന്നത് എൻറെ ഒപ്പം ഒരു പത്ത് പേരുണ്ടാവും ഞാനും എൻ്റെ ബന്ധുക്കളും കൂടി ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വന്നതാണ് എൻ്റെ മുത്തശ്ശൻ്റെ പിറന്നാൾ അനുബന്ധിച്ച് ഇല്ല അറിയില്ല ഇവിടെ ഒരാളോട് ഞാൻ ചോ ഞങ്ങൾ ചോദിക്കുകയുണ്ടായി ഏറ്റവും അടുത്ത നല്ല റെസ്റ്റൊർൻറ് ഏതാണെന്ന് അപ്പം ഒരാൾ ഇവിടെ ഉണ്ടായിരുന്ന തിരുമേനിയാണ് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത് മൃഗസ്നേഹി റെസ്റ്റൊറൻറിൻ്റെ കാര്യം ഞങ്ങളുടെ കുടുമ്പത്തിൽ എല്ലാം കഴിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ പക്ഷേ ഒന്ന് രണ്ട് പേർ വെജിറ്റേറിയൻസ് ആണ് അപ്പം നിങ്ങളുടെ മൃഗസ്നേഹി റെസ്റ്റൊറൻറിൽ വെജിറ്റബിൾ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് ഓ നല്ല നല്ലത് ആ ആ എൻറെ മുത്തശ്ശിക്ക് ഇഡ്ഡലി വേവിച്ചത് വളരെ പ്രിയപ്പെട്ടതാണ് പിന്നെ എൻ്റെ മുത്തശ്ശിക്ക് വെള്ളം അലർജി ആണ് അതുകൊണ്ട് കുടിക്കാൻ വേറെ എന്തെങ്കിലും കാണുമോ ഓ സമാധാനം ഓ സമാധാനമായി ഞാൻ ഇവിടെ പല റെസ്റ്റൊറൻറിലും അന്വേഷിച്ചപ്പോൾ അങ്ങനെ എല്ലായിടത്തും പശൂമ്പാലായിരുന്നു പക്ഷേ എൻറെ ആൻറിക്കാണെങ്കിൽ പശൂമ്പാൽ അലർജി ആണ് അതുകൊണ്ട് ഇപ്പോഴാണ് ഒന്ന് സമാധാനം ആയത് രണ്ട് ലിറ്റർ എൻ്റെ മുത്തശ്സന് തന്നെ വേണ്ടി വരും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും നന്നായി കുടിക്കുന്ന ആൾക്കാരാണ് എല്ലാം ഒരു അഞ്ച് ലിറ്റർ പാൽ എങ്കിലും ഒറ്റയിരുപ്പിൽ കുടിക്കുന്നവരാണ് എല്ലാവരും ഓക്കെ ഓൾസോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോൾ ഇത്ര വയസ്സായെങ്കിലും നല്ല ഫിലി ഫിസിക്കലി ആക്റ്റീവ് ആയ ആൾക്കാരാണ് ജിമ്മിൽ പോവുന്നവരാണ് അപ്പോൾ അവർക്ക് പ്രോട്ടീൻ പൗഡർ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഓ ഓ അത് മതി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോഴും സൈക്ലിങ്ങിനൊക്കെ പോകുന്നതാണേ ഓഫ് റോഡ് അപ്പം അവർ ഇങ്ങനെ പ്രോട്ടീൻ പൗഡറും ഒന്നുമില്ലാതെ പറ്റില്ല അവർക്ക് അതുകൊണ്ടാണ് ഞാനെടുത്ത് ചോദിക്കാൻ കാരണം ഒരു ഉച്ച തിരിഞ്ഞ് ഒരു രാത്രി ഒമ്പത് മണിക്കായിരിക്കും അതെ ഒരു നാല് ടേബിൾ റിസേർവ് ചെയ്തിട്ടോ ഞങ്ങളൊരു ഞാനും എൻ്റെ കൂടെ ഒരു പത്ത് പേർ ഉണ്ടാവും ഒരു പതിനൊന്ന് പേർ മൊത്തം ഓക്കെ താങ്ക് യു